അതെ ഞാൻ ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നമ്മൾ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻറെയേ പോകുന്നതിനാണ് ആ അതെ എത്ര മണിക്ക് വരും എയർപോർട്ടിൽ ആ ഞാൻ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരും ഒരു പന്ത്രണ്ടര ആകുമ്പോൾ ലാൻഡ് ചെയ്യും

അവിടെ കാണുമോ വിളിക്കാൻ കാണുമോ വിളിക്കാൻ കാണുമോ നമ്മളേ ഫാമിലി ആയിട്ടാണ് വരുന്നതേ ഞങ്ങൾ അഞ്ച് പേർ ഉണ്ട് അപ്പം വലിയ വലിയ വണ്ടി കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും പിന്നെ എന്തൊക്കെ പ്രത്യേകതയാണ് ആ അമ്പലത്തിലുള്ളത് അതെ അതെ ആ ആ

ഓ മുണ്ട് അത് സ്ത്രീകക് സ്ത്രീകൾക്ക് അപ്പം എങ്ങനെയാണ് അല്ല സാരി അങ്ങനെയുള്ള അങ്ങനെയുള്ളതൊന്നും വേണ്ടേ ഇത് അപ്പം മുണ്ടും പിന്നെ എന്താണ് സമയം അത് കയറുന്ന സമയം ഇത് നട തുറന്നുവരുന്ന സമയം ഒക്കെയോ

ആ അവരുടെ അപ്പം എക്സ്പെൻസിൻറെ വല്ലതും എക്സ്പെൻസ് എക്സ്പെൻസീവ് വല്ലതും ഉണ്ടോ അവിടെ വല്ലതും നമുക്ക് ലോഡ്ജോ വല്ലതും താമസിക്കാനുള്ളത്

അല്ല നല്ല ലോഡ്ജ് വേണം നമ്മൾ അത് ഫാമിലി ആണേ ഫുഡും ഇതൊക്കെ എങ്ങനെയാണ് അതിൻറെ കാര്യങ്ങളൊക്കെ ആ അപ്പോൾ കൂടെ തന്നെ ഞാൻ ചോദിക്കട്ടെ അതുമാത്രമല്ല ഓ നിങ്ങളും നിങ്ങളും കൂടെ തന്നെ കാണുമല്ലോ അത് ഉണ്ടാവുമല്ലോ

അപ്പോൾ വെജ് വെജിറ്റേറിയൻ അല്ലേ വെജിറ്റേറിയൻ അല്ലേ ക്ഷേത്രപരിസരത്ത് നോൺ വെജ് കാണുമോ ക്ഷേത്രപരിസരത്ത് നോൺ വെജ് കാണ ഹാ ഹാ ഹാ ഓക്കെ ആ ശരി ശരി ആ കുട്ടികളേ ഇത് നോൺ വെജ് ആണ് ആ ഓക്കെ ഓക്കെ ഓക്കെ

തിരുവനന്തപുരം ആ ഓ പൂവോ തിരുവനന്തപുരത്ത് ഈ പത്മനാഭസ്വാമിക്ഷേത്രം അല്ലാതെ വേറെ എന്തെങ്കിലും മ്യൂസിയമോ അങ്ങനെ സൂ അങ്ങനെ എന്തെങ്കിലും

ആ ആ ഓക്കെ ശരി പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാനാണ് ക്ഷേത്രത്തിൽ പോ കുളിച്ച് ഈറനോടെ തന്നെ കേറണ്ടേ അതോ ആ ഹാ ശരി ശരി അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ വിളി കോൾ ചെയ്യാം ചെയ്യാം ഓക്കെ ഉണ്ട് ഉണ്ട് അതാണ് ചോദിച്ചത് സൂ സൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാലോ നമുക്ക് ഇപ്പോൾ അല്ല നമുക്ക് ഇപ്പോൾ അല്ല അതിനാണ് അതിനും മേലുള്ള ക്ഷേത്രങ്ങൾ ആണിപ്പം നമ്മൾ നോക്കുന്നത് മെയിൻ ആയിട്ട് ക്ഷേത്ര ക്ഷേത്രങ്ങളാണ് നോക്കുന്നത് അതെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഉള്ളതിപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം പഴവങ്ങാടി ഉണ്ട് ഉള്ളത് അല്ലേ അവിടുത്തെ ആചാരം ഇതുപോലെ തന്നെയാണോ അതോ

ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻറെ പ്രത്യേകത അറിയാമോ എന്താണെന്ന് അതെ അല്ലേ ആ അല്ല ഇത് പൂർണമായിട്ട് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു മൂന്ന് ഭാഗം ആയിട്ടാണല്ലേ ആ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ ആണല്ലേ ഓക്കെ ശരി ഞാൻ ലാൻഡ് ചെയ്തിട്ട് വിളിക്കാം അപ്പം അവിടെ കാണുമല്ലോ എയർപോർട്ടിൽ ഓക്കെ ശരി ശരി ഓക്കെ ശരി